അനുദിനം യാത്ര ചെയ്യുന്നവരാണ് നമ്മളോരോരുത്തരും നമ്മൾ ഒരാവശ്യങ്ങൾക്കുവേണ്ടി ഒരു സ്ഥലത്തുനിന്ന് വേറെ പട്ടണം പല പട്ടണങ്ങളിലേക്ക് നമ്മൾ പോകാറുണ്ട് നമ്മൾ നമ്മളിപ്പോൾ ജീവിക്കുന്ന സ്ഥലത്ത് നമുക്ക് പറ്റാത്ത ഓരോ കാര്യങ്ങളുണ്ട് നമുക്ക് നമ്മുടെ അനുദിനജീവിതത്തിൽ തന്നെ ഓരോ പ്രശ്നങ്ങൾക്കുവേണ്ടി നമ്മൾ ആ ഇപ്പം പട്ടണങ്ങളിലേക്ക് പോകുന്നുണ്ട് യാത്ര യാത്ര ചെയ്തു പോകുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് വണ്ടി ഓടിച്ചു പോകുന്നതുകൊണ്ട് അന്യ മറ്റു പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും ഒക്കെ പോയി നമ്മളോരോ കാര്യങ്ങൾ അത്യാവശ്യം നമ്മൾക്ക് നമ്മുടെ ഇവിടെ കിട്ടുന്നില്ല ഒരു സാധനം അതിനുവേണ്ടി നമ്മൾ എവിടെ കിട്ടുമെന്ന് ആദ്യം അന്വേഷിക്കും അവിടെ അന്വേഷിച്ചുകൊണ്ട് നമ്മൾ ആ പട്ടണത്തിലേക്ക് പോകുവാൻ റെഡി ആകുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ പോകും അത് മേടിക്കും അപ്പോഴായിരിക്കും ഓർക്കുന്നത് വേറെ ഒരു സാധനം കൂടെ വേണം അങ്ങനെ ആവുമ്പോൾ നമ്മൾ അടുത്ത പട്ടണത്തിലേക്കും പോകേണ്ടി വരും അങ്ങനെ നമ്മൾ പട്ടണങ്ങൾ തോറും സഞ്ചരിച്ച് ഓരോ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നവരാണ് എല്ലാവരുമൊക്കെത്തന്നെ നമ്മളിപ്പോൾ അത്യാവശ്യം നമ്മുടെ പിളളാരുടെ പഠന കാര്യങ്ങൾക്കുപോലും പഠനത്തിൻ്റെ ആവശ്യത്തിന് നമ്മളിപ്പോൾ ഒരു സ്ഥലത്തുപോയി അത് കിട്ടിയില്ല ഉടനെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യമാണല്ലോയെന്നോർത്ത് നമ്മളൊന്നും വിചാരിക്കത്തില്ല നമ്മളുടനെ അത്യാവശ്യം അടുത്ത പട്ടണത്തിൽ അല്ലെങ്കിൽ അതെവിടെ കിട്ടും എന്നാലോചിച്ച് നമ്മൾ പോകും പോകുന്നതിനെന്ത് നമ്മൾ ഓരോരോ കാര്യങ്ങൾക്കും ഇന്ന ആവശ്യങ്ങളെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മുടെ ജീവിതത്തിൽ ഓരോ ആവശ്യങ്ങൾ നമ്മുടെ ഇപ്പം ഇത് നമുക്കിപ്പോൾ എന്തെങ്കിലും നമ്മുടെ വീട്ടിൻ്റെ കാര്യത്തിന് എന്തെങ്കിലും ഒരു എക്സ്റ്റെൻഷൻ വർക്കോ എന്തെങ്കിലും വേണം നമ്മുടെ ഇവിടെ നടക്കത്തില്ല അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ചാർജ്ജ് കൂടുതലാണ് അങ്ങനെയുണ്ടെങ്കിൽ നമ്മളെ അടുത്ത പട്ടണത്തിൽ അല്ലെങ്കിൽ അടുത്ത ഗ്രാമത്തിലേക്ക് നമ്മൾ തിരക്കും ഇന്നയിടത്ത് അത് ഇത് ഏതായിട്ട് കിട്ടും നമുക്ക് അങ്ങനെ ഉള്ളയിടത്തോട്ട് നമ്മൾ പോകും അങ്ങനെയൊക്കെ നമ്മൾ പട്ടണങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് അപ്പം നമുക്ക് ആ അവിടുത്തെ ആ രീതികളും അവിടുത്തെ ആൾക്കാരുമൊക്കെയായിട്ടൊക്കെ കൂടുതൽ പരിചയപ്പെടാനും അവിടുത്തെ ആൾക്കാരെ നമുക്ക് മനസ്സിലാക്കാനുമൊക്കെ പറ്റും അപ്പം നമ്മളിവിടുത്തെ ആൾക്കാരുമായിട്ട് നമുക്കവരെ വേണമെങ്കിൽ താരതമ്യപ്പെടുത്താം അങ്ങനെയുണ്ട് നമ്മുടെ ഒരു സാധനത്തിന് നമ്മൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഇവിടെ ഭയങ്കര വിലയായിരിക്കും അങ്ങനെയുള്ള സാധനങ്ങളാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അവിടെ ചെന്നു കഴിഞ്ഞാൽ നമ്മളുദ്ദേശിക്കുന്ന വിലയ്ക്ക് കിട്ടും അങ്ങനെ കാണും അപ്പം അവിടെ ചെല്ലുമ്പോഴായിരിക്കും നമ്മളറിയുന്നത് അന്യ അടുത്ത സ്ഥലത്ത് ചെന്നുകഴിഞ്ഞാൽ നമുക്കതിനെക്കാളും കൂടുതൽ കിട്ടും അപ്പം നമ്മൾ ചിലപ്പം നമ്മൾ പോകാൻ ബുദ്ധിമുട്ടാതെ അവിടുത്തെ ഉള്ള ആൾക്കാരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയോ അങ്ങനെ സംഭവം എല്ലാം റെഡി ആയിക്കഴിഞ്ഞിട്ട് നമ്മൾ വേണമെങ്കിൽ പോയി മേടിക്കും അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാം അങ്ങനെ പട്ടണങ്ങൾതോറും നമ്മൾ സഞ്ചരിക്കുന്നവരാണ് സഞ്ചരിച്ചുകൊണ്ട് ഇരിക്കുന്നു ഇരിക്കുകയും ചെയ്യും ഇനിയും നമ്മുടെ തലമുറയ്ക്കും അതു തന്നെന്നാണ് നമ്മളോരോ ഓരോ നമ്മുടെ ഇവിടെ നമുക്ക് തന്നെ ലഭ്യമാകണമെന്നില്ല എല്ലായിടത്തും അതുപോലെ നമ്മളങ്ങനെ പട്ടണങ്ങൾ തോറും സഞ്ചരിക്കുന്നവരാണ് ഇന്നിങ്ങനെ ഇപ്പോൾ അത്യാവശ്യ സാധനങ്ങൾക്ക് വേണ്ടിയാണേെങ്കിലും നമ്മൾ ഓരോ ഓരോരോ കാര്യങ്ങൾ ഇതിപ്പോൾ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കുവേണ്ടി നമ്മൾ പുറത്തോട്ട് പോകുകയോ ഒക്കെ ചെയ്യുന്നവരാണ് അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ നമ്മുടെ പിള്ളാരെയൊക്കെ പഠിപ്പിക്കാനാണെങ്കിലും ഒരു ഒരു നമ്മുടെ ഈ പട്ടണത്തിൽ നിന്ന് വിട്ട് വേറൊരു പട്ടണത്തിലേക്ക് നമുക്ക് പോകണം അപ്പോൾ നമ്മളാദ്യമേ പോയി ആ അതിൻ്റെ ലൊക്കാലിറ്റി കാര്യങ്ങളൊക്കെ അന്വേഷിക്കും അവിടെ എങ്ങനെയുള്ളവരാണ് അവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ് നമ്മുടെ കൊച്ചിനെ അല്ലെങ്കിൽ നമ്മുടെ മകൻ അല്ലെങ്കിൽ മകൾക്ക് അവിടെ നിൽക്കുവാൻ പറ്റുമോ അങ്ങനെയുള്ള രീതികൾ നമ്മൾ തിരക്കുന്ന അനുഭവമായിട്ടും നമ്മളങ്ങനെ അന്വേഷിച്ചു പോകാറുണ്ട് അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ അതുപോലെതന്നെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങൾ ഉൽപ്പന്നങ്ങളുണ്ടെങ്കിൽ അത് വെക്കുന്നതിനും അതിനുമൊക്കെയായിട്ട് നമ്മൾ അന്യപട്ടണങ്ങൾ ഗ്രാമങ്ങളെയൊക്കെ ആശ്രയിക്കുന്നുണ്ട് അവിടെയൊക്കെ അവിടെ നിന്ന് നമ്മൾ പോയി നമുക്ക് വേണ്ട സാധനങ്ങളിങ്ങോട്ട് കളെക്റ്റ് ചെയ്യും നമ്മുടെ സാധനങ്ങളങ്ങോട്ട് കൊണ്ടുക്കൊടുക്കും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരിപാടികൾക്കുവേണ്ടി നമ്മൾ പട്ടണങ്ങളെ ആശ്രയിക്കും നമ്മുടെയനുദിന ജീവിതത്തിൽ പട്ടണങ്ങളിലെ ഒരു നമ്മുടെ ഗ്രാമം അല്ലെങ്കിൽ നമ്മുടെ പട്ടണം മാത്രമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല നമുക്ക് ഇപ്പോൾ ട്രാൻസ്പോർട്ട് സൌകര്യങ്ങളുണ്ട് ട്രെയിനൊന്നും കിട്ടി പോകേണ്ടടുത്ത് അങ്ങനെ പോകാം അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്കന്യ അന്യ അല്ലെങ്കിൽ മറ്റു പട്ടണങ്ങളെ അപേക്ഷിച്ച് നമുക്ക് കാര്യങ്ങൾ നടത്തുവാനായിട്ടൊക്കെ സാധിക്കുന്ന ഒരു രീതിയുണ്ട് നമുക്ക് അതാണ് മറ്റു പട്ടണങ്ങളിലെ നമ്മളെ ആശ്രയിച്ച് ചെയ്യുന്ന മെയിനായിട്ടുള്ള കാര്യങ്ങൾ